ഇപ്പം നമ്മുടെ തോട്ടത്തിലൊക്കെ നമ്മള് ഇപ്പം നടുന്ന മരങ്ങളില് ഇപ്പം കായ്കനികള് കാര്യങ്ങളക്കെ ഇണ്ടാവുന്നതും അതായത് ഇപ്പം നമുക്ക് വേണങ്കി പറയാം ഇപ്പം നമ്മളൊരു ചെറിയ ഒരു വാഴ വെക്കുവാണെങ്കില് അതിലൊരു ഇപ്പം വല്യ അത്യാവശ്യം വലുതൊന്നു ആവണ്ട അധികം ചെറിയ ഒരു കൊലയാണെങ്കിലും അത് നമുക്ക് അതുണ്ടാവുന്നത് കാണുന്ന നമുക്ക് വലിയൊരു സന്തോഷാണ് അപ്പം നമ്മളത് പറിച്ച് വെട്ടി നമ്മള് പഴുപ്പിച്ച് തിന്നുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം ആവും നമ്മളുണ്ടാക്കിയതാണല്ലോ എന്നാൽ പിന്നെ നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരോടും പറയും ഇപ്പം ഞാൻ ഉണ്ടാക്കിയ കൊലയാണ് അതാ അതിൻ്റെ പഴാണന്നക്കെ പറഞ്ഞിട്ട് നമ്മള് എല്ലാവർക്കും കൊടുക്കും കഴിക്കുവൊക്കെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ചെടികളുടെ കാര്യം പറയുവാണെങ്കില് നമ്മള് ഒരു പാട് ചെടികള് നടുന്ന നടുന്ന വ്യക്തികൾ ഒരുപാടുണ്ടാകും അപ്പം ചെലവരൊക്കെ അടുത്ത വീട്ടീന്നക്കെ ഓരോ കമ്പൊക്കെ കുത്തി പിന്നെ ചിലപ്പം അത് പിന്നെ കമ്പുകളൊക്കെ പിന്നെ അതായത് ചെടീൻ്റെ കമ്പുകളക്കെ മേടിച്ച് പിന്നെ വീട്ടില് കൊണ്ട് നടും അത് നല്ലോണം വെള്ളൊക്കെ ഒഴിച്ച് പിന്നെ വെള്ളൊക്കെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അതിന് വളം ഒക്കെ ഇടുവാണെങ്കിലും പിന്നെ നല്ലോണം തഴച്ച് വളരും അതില് പൂക്കള് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിന് തന്നെ ഒരു സന്തോഷാണ് നമ്മള് നട്ട ചെടീന്നൊരു പൂ വിരിയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഉണർവ് നമുക്കൊരു സന്തോഷോണ്